നമുക്ക് ഏറ്റവും കൂടുതല് നമ്മളുടെ ലോകത്തെപ്പറ്റി നമ്മള് ജീവിക്കുന്ന സാഹചര്യത്തെപ്പറ്റി അറിയുന്നതിനുവേണ്ടി ഉതകുന്ന ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് പത്രം അല്ലെങ്കില് പത്രമാസിക ആയിട്ടുള്ള വിഷയങ്ങള് ഈ പത്ര മാസികകളില്ക്കൂടി സാമൂഹ്യ വിഷയങ്ങൾ ഒത്തിരി ചർച്ച ചെയ്യാപ്പടാറുണ്ട് പക്ഷെ പത്രങ്ങളില് പലതും നമുക്കു മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളോടു പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല അവര് പറയുന്നത് അവർക്ക് അവരുടെ ഇഷ്ടത്തിനുവേണ്ടി വളച്ചൊടിച്ച് അതിനെ നീതിയുക്തമല്ലാത്ത രീതിയിലാണ് പത്രങ്ങളില് ഒക്കെ അവര് കൊണ്ടുവരുന്നത് ഒരിക്കലും ഒരു പത്രമാസികകള് അങ്ങനെ ആയിരിക്കരുത് മനുഷ്യനു നന്മ ചെയ്യുന്ന രീതിയില് സത്യസന്ധമായിട്ട് നീതിയുക്തമായിട്ടു നടത്തുന്നതിലായിരിക്കും അതിൻ്റെ വിജയം ഇപ്പോള് ഇന്നത്തെ നമ്മുടെ പത്രങ്ങള് പലതും അങ്ങനെയാണു നമുക്കു കാണാൻ പറ്റുന്നത് നമ്മള് വിശ്വസിക്കുന്ന ചില പത്രങ്ങളൊക്കെ അവര് കൊടുക്കുന്ന വാർത്ത ആ സംഭവമായിട്ട് യാതൊരു പുലബന്ധം പോലുമില്ലാതെ അയിനെ വളച്ചൊടിച്ച് നമ്മടെ ചിന്താഗതി തന്നെ മാറ്റുകയെന്ന രീതിയിൽ നമ്മൾക്കൊരു ബോധൽക്കരണം തരുന്നെ അവരങ്ങനെയാണ് അതായിരിക്കരുതൊരു പത്ര പ്രവർത്തനം മനുഷ്യൻ്റെ നന്മയെ ലക്ഷ്യമാക്കി മനുഷ്യൻ്റെ അറിയാനുള്ള ആ വ്യഗ്രത സത്യസന്ധമായിട്ട് അറിയുന്നതിനുവേണ്ടിയുള്ളൊരു മാധ്യമ പ്രവർത്തനമായിരിക്കണം പത്രങ്ങൾ നടത്തേണ്ടത് പക്ഷെ ഇതല്ല എന്നുള്ളത് ഒരു സത്യവുമാണ് പത്രങ്ങളില്ക്കൂടി നമുക്കു നമ്മുടെ നാടിൻ്റെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കു പ്രത്യേകം അറിയാൻ വേണ്ടി അതില്ക്കൂടി അറിവുള്ള ആൾക്കാര് നമുക്കു പറഞ്ഞുതരുന്നതാണ് ഒരു പത്ര മാധ്യമ പ്രവർത്തകന്റെ പ്രവർത്തനം അപ്പോള് അവരിൽനിന്നു കിട്ടുന്ന അറിവുകളാണ് നമുക്കു ലോകത്തെ പറ്റിയോ അല്ലെങ്കില് നമ്മുടെ രാജ്യത്തെ പറ്റിയോ ഒക്കെ നമുക്കറിയാൻ കഴിയുക ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് രാഷ്ട്രീയമായാലും മതപരായ കാര്യങ്ങളായാലും സാമൂഹ്യവുമുള്ള എന്തു കാര്യങ്ങളും ആയിക്കോട്ടെ അത് അവര് ചർച്ച ചെയ്യുമ്പോള് അവരുടെ ഇഷ്ടത്തിനു വളച്ചൊടിച്ച് അതിനെ തെറ്റായ രീതിയില് നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചേല്പ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറുള്ളത് ഒരിക്കലും അത് ഭൂഷണമല്ല നമുക്ക് നമ്മടേതായ കാര്യങ്ങള് സത്യസന്ധമായിട്ട് അറിയാനും അതിനെ നമുക്ക് അങ്ങനെ വിലയിരുത്തി അറിയുന്നതിനും വേണ്ടിയുള്ള സാഹചര്യം പത്രത്തില്ക്കൂടിയും മറ്റു സാമൂഹിക സംസ്കാരിക രംഗങ്ങളിലെ ഇതുള്ള അല്ല മറ്റു കൂടി നമ്മളറിയുന്നതിനുവേണ്ടി ഉള്ള അവസരങ്ങൾ നമുക്കുണ്ടാക്കിത്തരിക എന്നുള്ളതാണ് വേണ്ടത് പക്ഷെ നമ്മളിന്ന് കാണുന്നത് അങ്ങനെയല്ല നമ്മുടെ യുക്തിക്കോ നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങൾക്കോ ഒന്നും നിരക്കാത്ത രീതിയില് തെറ്റായിട്ട് അത് നമ്മളില് അടിച്ചെൽപ്പിക്കുകയാണ് ഇന്നതാണ് ശരിയെന്ന് തെറ്റിനെ അവ ശരിയാണെന്നു പറയുന്നു തെറ്റു തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറഞ്ഞു നമ്മളെ മനസിലാക്കിത്തന്നാലേ നമുക്ക് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ടറിയാൻ കഴിയുകയുള്ളൂ സത്യസന്ധമായിട്ടു പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിരിക്കണം പത്രങ്ങളില്ക്കൂടി നമുക്ക് കിട്ടേണ്ടത് എന്നതാണ് എനിക്ക് ഇതേക്കുറിച്ചു പറയാാനുള്ളത്